നമസ്കാരം എൻ എം ആർ ഹോട്ടലല്ലേ ഞാൻ വിളിക്കുന്നത് ആണ് ഞാനൊരു പത്ത് പൊറോട്ടയും ചിക്കൻ കറിയും അതിനുപുറമേ അൽഫാമും ഒരു ഫുൾ അൽഫാമും റൈസും ഓർഡർ ചെയ്തിരുന്നു അതിനു കൂടാതെ എനിക്ക് കേക്ക് വേണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒരു കെ ജി വൈറ്റ് ഫോറസ്റ്റ് വേണം വൺ കെ ജി സ്വീറ്റ്സിൽ ലഡു ഒരു പത്തെണ്ണം ജിലേബി ഒരു പത്തെണ്ണം പിന്നെ ഐസ് ക്രീം ഏതാ ഉള്ളത് വാനില ഐസ് ക്രീം അര കെ ജി പിസ്ത അര കെ ജി ഇതൊക്കെ എക്സ്ട്ര വരണ്ടേതാണ് ഇതിനൊപ്പം ഈ ഓർഡറിനൊപ്പം തന്നെ അത് ഏഡ്ഡ് ചെയ്തോളൂ കേട്ടോ